ആ ഹലോ ആ ഓക്കെ ആമസൊണീന്നാ അത് എവിടെയാണ് എത്തിയിരിക്കുന്നത് പാറത്തോട്ടിൽ ഉണ്ട് ഞാനെ അവിടെ നിലവിൽ സ്ഥലത്തില്ലായിരുന്നു ഇപ്പം നിലവിൽ എവിടെയാണ് കറക്റ്റെവിടെയാണ് പാറത്തോട്ടിലാണോ ആ ഓക്കെ ഞാൻ ആ നിലവിൽ നമുക്ക് അവിടെ വേറെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോന്നെ ആ ഓക്കെ ഇപ്പം ഞാന് ഞാൻ അവിടെ ആ ഞാൻ അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു അല്ലേ ആ ഓക്കെ ആ ആ ഓക്കെ നമ്മുടെ ഒരു സു ഇപ്പം ഞാന് തന്നെ മേടിക്കണം എന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മേടിച്ചാലും കുഴപ്പം ഇല്ലല്ലോ ആ ഹാ ആ ഹാ ആണല്ലേ അപ്പം ഞാൻ ഓക്കെ നിങ്ങൾ എത്ര മണി വരെ ഉണ്ട് പാറത്തോട് ആണോ ഞാൻ ഇപ്പോള് നിലവിൽ മുനിയറാന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണത് അല്ലെങ്കിൽ അവിടെയായിട്ട് അടുത്ത് എവിടെയെങ്കിലും കടകളിൽ കൊടുക്കാന് പറ്റുമോ നമ്മുടെ തൊട്ടടുത്ത കടകളിൽ ആ ആ ആ ആ ഓക്കെ ആ ഓക്കെ ആ അതെ അതെ അതെ

ആ ഓക്കെ ഞാൻ ഏതായാലും മുനിയറ ഇപ്പം മുനിയറയാണ് അപ്പം മുനിയറേന്നവിടെ വരാന് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കും അപ്പം അങ്ങനാണേല് നിങ്ങൾക്ക് എന്റെ വീട്ടിലൊന്ന് കൊടുക്കാന് പറ്റുമോ അതെ അതെ അതെ അതെ പണിക്കും കുടി കഴിഞ്ഞിട്ടാണ് ആ എന്റെ പണിക്കും കുടീന്ന് മുനിയറക്ക് ഒരു ഏകദേശം ഒരു ആറ് കിലോമീറ്ററക്കെ കാണുവുള്ളൂ ആ ആ നിങ്ങൾ പണിക്കും കുടി ഏ പണിക്കും കുടി ഏത് സമയം പണിക്കും കുടിയിൽ പണിക്കും കുടിയിൽ ഏകദേശം എത്ര മണിയൊക്കെ ആകുമ്പോഴ്ത്തേനും എത്തും ആ ഹാ ഹാ ആ ആ അങ്ങനെ ആണേൽ നമുക്ക് പണിക്കും കുടി പണിക്കും കുടി എവിടെയായിട്ടായിരിക്കും വരുന്നത് പണിക്കും കുടി അത് എന്നാന്ന് വെച്ചാൽ പണിക്കും കുടി ആ രണ്ട് സിറ്റിയൊണ്ടേ വലത്ത് സിറ്റി താഴത്തെ സിറ്റിയൊണ്ട് അതായത് പാറത്തൊട്ടീന്ന് വരുമ്പം കാണുന്ന ആദ്യത്തെ ഇത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അവിടെ ഏത് സമയത്താണ് കാണുന്നത് എന്നാണ് പറഞ്ഞത് ഇപ്പം

ആ ഓക്കെ ഓക്കെ എന്നാൽ ഗുരുമന്ദിരത്തിന്റെ അടുത്ത് ബൈക്കിനാണോ വണ്ടിക്കാണോ എന്നാൽ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ അവിടെ ഗുരുമന്ദിരത്തിന്റെ അടുത്ത് വരുമ്പം വിളിച്ചേക്കാം കേട്ടോ ഓക്കെ ഓക്കെ ശരി